നമ്മുടെ ഗ്രാമത്തെ സംബന്ധിച്ച് പറഞ്ഞാല് ഒരുപാട് സാധാരണക്കാര് തിങ്ങി പാർക്കുന്ന ഒര് സ്ഥലമാണ് അത് എൻ്റെ സ്ഥലമെന്നത് കരുവാറ്റ എന്ന ദേശവാണ് ഇവിടെ പഴയ കാലഘട്ടങ്ങളൊക്കെ മാറിയിരിക്കുകയാണ് ഇപ്പം എല്ലാവരും ഒരു വീട്ടിൽ പോലും വിദ്യാഭ്യാസമോ മറ്റ് സാഹചര്യങ്ങളോ ഇല്ലാത്ത ഭവനങ്ങളില്ല കുടുംബത്തിലെ മക്കളൊക്കെ ഉന്നത വിദ്യാഭ്യാസം ചെയ്യിക്കണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹങ്ങള്

ഇവിടെ ഉള്ള ഈ യുവാക്കളൊക്കെ ആ ഒരു പഴയ കാലഘട്ടത്തിൻ്റെ ജോലികളും സാധ്യതകളൊക്കെ മാറ്റി പുതിയ പുതിയ ജോലി സാധ്യതകള് അന്വേഷിച്ചു കണ്ടെത്തുന്ന ഒരു മേഖലയിലേക്കാണ് അവര് പോന്നത് പാരമ്പര്യമായിട്ട് എൻ്റെ ഒക്കെ പ്രദേശത്ത് കൃഷിപ്പണിയും മൽസ്യ ബന്ധനവും അതായത് ഉൾനാടൻ മൽസ്യ ബന്ധനവും അങ്ങനെ ഒക്കെയുള്ള ഒരുപാട് കൃഷി സംബന്ധമായ മേഖലകളൊക്കെ ഉണ്ടായിരുന്നു ഇത് ഇന്നിതില് പല യുവാക്കളും സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പല യുവാക്കളും ഇന്ന് ആ പഴയ തൊഴിൽ ചെയ്യുന്നു എന്നല്ലാതെ വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടില്ല എന്നാലിന്ന് പലരും അൽപ്പം മെച്ചപ്പെട്ട ഒരു ജോലി മേഖലകളിലേക്കൊക്കെയാണ് യുവതി യുവാക്കളൊക്കെ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത് പാരമ്പര്യ തൊഴിലായ മൽസ്യ ബന്ധനമോ കൃഷിയോ പിന്തുടരാന് പലർക്കും അത് ഒര് മേഖലയിലേക്ക് കടന്നുവരാന് താല്പര്യമില്ലാത്ത അവസ്ഥയാണ് അതുകൊണ്ട് ഇന്ന് ഒട്ടനവധി ആൾക്കാര് പിന്നെ യുവാക്കളായാലും പുതിയ പുതിയ ജോലി മേഖലകളൊക്കെ കണ്ടെത്തി കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അവര് പലരും ഇപ്പോഴ് ഗ്രാമങ്ങൾ വിട്ട് പട്ടണങ്ങളിലേക്കും നഗരങ്ങളിലേക്കും ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവര് അവരുടേതായ വിദ്യാഭ്യാസ സംബന്ധമായും അവരല്ലാത്ത രീതിയില് പഠിച്ചിട്ടുള്ളതുമായ കായികമായ തൊഴിലും അല്ലാതുള്ള തൊഴിലുകളിലൊക്കെ മേഖലകളിലേക്കൊക്കെ ഓരോരുത്തര് വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഒര് ആളു പോലും സ്വന്തം നാട്ടിൽ നിൽക്കപ്പെടാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല അതൊരു വസ്തുതയാണ് എവിടെയെങ്കിലും കടന്നുപോയിട്ട് തുച്ഛമായ ശമ്പളം ആയാലും അവിടെയൊക്കെ ജോലി ചെയ്ത് കടന്നുപോകണമെന്നുള്ള താല്പര്യത്തോടെ ഇന്ന് ഗ്രാമങ്ങള് വിട്ട് പട്ടണത്തിലേക്ക് ഉദാഹരണത്തിന് എറണാകുളം അതുപോലെ തൃശൂര് അങ്ങനെയൊക്കെയുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്ക് കൊച്ചി അങ്ങോട്ടൊക്കെ ഉള്ള സ്ഥലങ്ങളിലേക്കൊക്കെ കടന്നുപോകുന്നു അവിടെ പല മേഖലകളിലും ജോലി ചെയ്യുന്നു കൂടുതലും ആൾക്കാര് വലിയ വലിയ പട്ടണമായിട്ട് ഉള്ള മേഖലകളിലേക്കും ജോലിക്കായിട്ട് പല വിധ ജോലികൾക്ക് അവര് പഠിച്ചതായിട്ട് പല വിധ ജോലികൾക്കായിട്ട് കടന്നു പോയികൊണ്ടിരിക്കുകയാണ്